ഇതുവരെ നീന്തൽ പഠിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പുഴയിലോ ഇല്ലെങ്കിൽ കുളത്തിലോ തോട്ടിലോ പോലും ഇറങ്ങാറോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പുഴയിൽ എറങ്ങിയിട്ടോ ചെറുപ്പം മുതലേ പുഴയും വെള്ളവും കായലും അങ്ങനെ ഒന്നും ഇല്ല ഇപ്പോൾ ഇറങ്ങിയാൽത്തന്നെ കുളിക്കാനോ അതിനൊന്നും ഇതുവരെ നിന്നിട്ടും ഇല്ല അങ്ങനെ ഒരപകടം പറ്റിയ സാഹചര്യത്തിൽ ഇതുവരെ നിന്നിട്ടും ഇല്ല അങ്ങനെ സഹായിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ആ ഭാഗത്തേക്ക് പോവാത്തതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു ഇതോ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങത്തൊരു സംബന്ധിച്ചിട്ടൊന്നും ഇതുവരെ വരാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാനില്ല പിന്നെ മേയ് ബി അങ്ങനെയൊരു സാഹചര്യം വന്നാൽ എന്നെക്കൊണ്ട് കുളത്തിൽ ഇറങ്ങി നീന്തി രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അതിന് പറ്റിയവരെ അറിയിക്കാനും അതിനുള്ള സഹായ സഹകരണങ്ങൾ എന്താണെന്നു വച്ചാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും മുൻകയ്യെടുത്ത് ചെയ്യും ഇറങ്ങി സഹായിക്കാനുള്ള ഇതൊന്നുമില്ല അവരെ സഹായിക്കാനുള്ള എന്തെങ്കിലും തുമ്പ് എവിടെയെങ്കും കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് യുക്തിപൂർവ്വം നീങ്ങി പെരുമാറി ചെയ്യുകയും ചെയ്യും ഇതുവരെ നീന്തൽ പഠിക്കേണ്ട സാഹചര്യം വരാത്തതുകൊണ്ടോ ഇങ്ങോട്ടേക്ക് ആ ഇതിലേക്ക് പോവാത്തതുകൊണ്ട് ഇതുവരെ ആരും നീന്തൽ പഠിപ്പിക്കാനോ പഠിക്കാനോ തോന്നിയിട്ടും ഇല്ല ഇതുവരെ അങ്ങനെ വന്നിട്ടും ഇല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല